ഭാരതത്തിലെ സിനിമകളും സംഗീതങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും മുൻ നിരയിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും അതിഷ്ട്ടവുമാണ് ആസ്വദിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കില് പല തരത്തിലുള്ള സംഗിതങ്ങള്ണ്ട് കഥകളി സംഗീതം പിന്നെ ക്ലാസിക്കല് ക്ലാസിക്കലിൽ തന്നെ നമുക്ക് കർണാട്ടിക് കഥയ്ക്ക് അങ്ങനെ പല തരത്തിലുള്ള കലാരീതികളായിട്ടുള്ള സംഗീതങ്ങള് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് സിനിമകളായാലും ഇന്ത്യയിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് കോളി വുഡ് ത മോളി വുഡ് തമിഴ് വുഡ് അങ്ങനെ പല തരത്തിലുള്ള സിനിമകള്ണ്ട് എനിക്കതില് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ ബാഹുബലിയാണ് പിന്നെ സീരിയല് ഞാൻ കാണാറില്ല പൊതുവെ സീരിയല് എനിക്കിഷ്ടമല്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻ ലാലാണ് മലയാളത്തിലെ പ്രമുഖ നടനായ മോഹൻ ലാലാണ് നടിയാണെങ്കില് ഉർവ്വശി ചേച്ചിയാണ് സിനിമ ഗാനങ്ങളാണെങ്കില് വൈശാഖ സന്ധ്യേ അത് നല്ലൊരു ഗാനമാണ് എനിക്കത് ഭയങ്കര ഇഷ്ട്ടമാണ് വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേന്ന് പറഞ്ഞ ഗാനം പിന്നേ എൻ്റെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാറാണ് മലയാളത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും അടിപൊളി ഗായകനായ എം ജി ശ്രീകുമാർ